ഇപ്പോൾ എനിക്ക് പിക്കിനിക്കിന് പോകാൻ താൽപര്യമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് തുഷാര ഗിരി വാട്ടർ ഫോൾസ് അടിപൊളിയാണ് പിന്നെ ചെമ്പറ പീക്ക് കൊറുമ്പാല കോട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് പിന്നെ തൊള്ളായിരം കണ്ടി അവിടെയൊക്കെ എന്താ പറയാ പിക്നിക്കിന് പോവാൻ എനിക്ക് കൂടുതലും താല്പര്യമുള്ള വയനാട്ടിലുള്ള സ്ഥലങ്ങളവിടെയൊക്കെയാണ് പിന്നെ പുറമേന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്താ പറയാ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഒക്കെ അടിപൊളി സ്ഥലമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകാൻ ഒരുപാട് ഇഷ്ട്ടമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് പിന്നേ പുറത്തേക്ക് ഒക്കെയാണെങ്കിൽ കർണ്ണാടക ഭാഗത്തേക്ക് ഒക്കെയാണെങ്കിൽ ഊട്ടിലൊക്കെ എന്നുപറയുമ്പോൾ അടിപൊളിയാണ് ഊട്ടി കർണ്ണാടകയിലും തമിഴ്നാടൊക്കെ വരുമ്പോൾ എന്താ പറയാ ഊട്ടിലൊക്കേയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ഊട്ടിൽ തന്നെ മെയിൻ ഒരു ഗാർഡനാണ് ബൊട്ടാനിക്ക് ഗാർഡൻ അവിടെ പോവാൻ അടിപൊളിയാണ് കാരണം ഒരുപാട് ഏരിയയിൽ അടിപൊളിയായിട്ട് നല്ല വീതിയിൽ ഒക്കെയുള്ള സ്ഥലമാണ് അവിടെ കാണാൻ ആയാലും ഇരിക്കാനായാലും എല്ലാത്തിനും നല്ല സൗകര്യമൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാനാണ് താല്പര്യം കാരണം അവിടെയൊക്കെ പോയി ഇരിക്കാനും ഫാമിലിയായിട്ട് പോവാനും എല്ലാം പറ്റിയ സ്ഥലങ്ങളാണ് കൂടുതലും എന്ന് വെച്ചാൽ അവർക്കും ആസ്വദിക്കാൻ പറ്റും നമുക്കും ആ സ്ഥലമൊക്കെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും പിക്നിക്കിനൊക്കെ പോവാൻ എന്താ പറയാ അനുയോജ്യമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്കിതൊക്കെ തോന്നിയിട്ടുള്ളത്